ഇനിയും ഒരുപാട് ദൂരമുണ്ടോ ഇവടെ നിന്ന് ആണോ ശെരി ശെരി ശരിക്കും ഞാൻ ഈ നാട്ടുകാരിയല്ല ഞാൻ എൻ്റെ വീട് എറണാകുളത്താണ് കേട്ടിട്ടുണ്ടോ മഹാരാജാസ് ട്രൂപ്പിനെ ട്രൂപ്പിനെപ്പറ്റി ഞാനതിൻ്റെ തലവനാണ് അപ്പം ഞങ്ങളിവിടെ ഒരു ചെറിയ ശാഖ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാരുന്നു മട്ടന്നൂർ ഞാനതിൻ്റെ ആവശ്യത്തിലേക്ക് വന്നതാണ് അതെ അതെ ഓ അതു ശരി അതു ശരി താങ്കൾ ഈ നാട്ടുകാരനാണോ അതു ശരി കുറേ നാളായോ ഈ വണ്ടി ടാക്സീൻ്റെ ജോലി ചെയ്തു തുടങ്ങിയിട്ട് ഓ ശരി ശരി ഓ അതു ശരി ഓ അതു ശരി ഞാൻ ഏകദേശമൊരു പത്ത് കൊല്ലത്തിന് മേലേയായി ഈ രംഗത്തുതന്നെ ചെറിയ തോതിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ലാഭത്തിൽ ഒരു വർദ്ധനവ് വന്നപ്പം ഞങ്ങൾ എല്ലാ ജില്ലയിലും ഓരോ സംരഭം എന്ന രീതിയിൽ തുടങ്ങി തുടങ്ങി അതിൻ്റെയൊരു ശാഖയായിട്ട് തുടങ്ങി ഇപ്പോൾ ഇനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ മൂന്ന് ജില്ലയിലുംകൂടിയേ വരാനുണ്ടായിരുന്നുള്ളു അപ്പം കണ്ണൂർ ഞങ്ങളിപ്പം അതൊന്നു തുടങ്ങി നോക്കിയതാണ് ചെറിയ രീതിയിൽ ഇനി ബാക്കിയുള്ളത് പറ്റിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടു പോകുന്നുണ്ട് അടുത്ത് തന്നെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെ അതെ ആ അതും നല്ല കാര്യമല്ലേ യുവാക്കൾ ഈ മേഖലയിലേക്ക് യുവാക്കൾ കടന്നു വരികയാണ് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാറാണെങ്കിൽക്കൂടി ഇതിനാണ് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നത് മുദ്ര ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതൊക്കെയൊന്ന് ശ്രമിക്കാമായിരുന്നില്ലേ അതെ മുദ്ര ആ നിങ്ങളൊരു അഞ്ച് ലക്ഷത്തിലൊക്കെ തുടങ്ങിക്കോ അങ്ങനെയൊരു യഥാർത്ഥമായിട്ടൊരു ഇത് മൂലധനത്തെ പറ്റി പറയാൻ പറ്റില്ല നിങ്ങൾക്കൊരു കരുതലെപ്പോഴും ഉണ്ടായിരിക്കണം ഞാനതാണ് പറഞ്ഞത് മുദ്ര എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഗവണ്മെന്റ് തരുന്നുണ്ട് മുദ്ര എന്നു പറഞ്ഞ വായ്പ തരുന്നുണ്ട് അത് കൂടാതെ ആ അതെ അതെ അത് കൂടാതെ പിന്നെ സാധാരണ ബാങ്കുകളൊക്കെ ഈ എന്താ പറയുക ബിസിനസ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ആ രീതിയിലും കൂടി നിങ്ങൾ നോക്കിയാൽ മതി അ ആ ഇപ്പോൾ ചെറുതായി ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയാൽ പോരെ ഒരു ചെറിയ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന പോലെ ചെറിയൊരു കടമുറി എടുക്കുക എടുക്കുക അപ്പം അതിലത്ത്യാവശ്യം സാധനവും കാര്യങ്ങളൊക്കെ വച്ച് ചെറിയ രീതിയിലൊരു സംരഭം എന്നുളള രീതിയിൽ മുന്നോട്ട് പൊയ്ക്കോ അങ്ങനെയാണ് ഞങ്ങളും തുടങ്ങിയിട്ടുണ്ടാരുന്നത് ആ രീതിയിൽ പോയാൽ നമ്മൾക്കെന്തായാലും അതിൽനിന്നൊരു ലാഭം പ്രതീക്ഷിക്കാം ഒന്നാമതായി അവിടെ വേറൊരു സ്ഥാപനം ഇല്ലാത്തതല്ലേ അപ്പം എന്തെങ്കിലുമൊരു നല്ല എന്താ പറയുക നമക്കനുകൂലമായൊരു സംരഭം ഉണ്ടാക്കാൻ പറ്റുന്ന ശ്രമിക്കാം നമുക്ക് ആ തീർച്ചായും ആദ്യം ആ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക രെജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയുണ്ട് ആദ്യം നിങ്ങൾക്ക് പറ്റിയൊരു നല്ലയൊര് ആകർഷകമായ പേര് കണ്ടുപിടിക്കണം നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ളത് അതിലാണ് എല്ലാവരുടേയും കണ്ണ് ആകർഷിക്കേണ്ടത് അത്ര നല്ല പേരായിരിക്കണം അത് ആ ആതെ അതെ

പിന്നെ കുറച്ച് എന്താ പറയുക പഞ്ചായത്തിലും മറ്റും കുറച്ച് രെജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയുണ്ട് അത് ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കണം എന്താണെന്ന് വച്ചാൽ ഇപ്പം ഷോപ്പ് ആൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് രെജിസ്ട്രേഷനുണ്ട് പിന്നെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് രെജിസ്ട്രേഷൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടണം പിന്നെ നമ്മുടെ നാട്ടിലുള്ള വൈദ്യുതി ജലം തുടങ്ങിയ അനുമതികളൊക്കെ നമുക്ക് വേണം ഒരു ആ അതിൻ്റെ കൂടെ തന്നെ ജി എസ് ടി അതൊക്കെ ഇപ്പം നിർബന്ധമാണ് ജി എസ് ടി രെജിസ്ട്രേഷനും പിന്നെ വ്യാപാരത്തിനുള്ള ട്രേഡ് ലൈസൻസും കാര്യങ്ങളും ഒക്കെ നമക്കുണ്ടായിരിക്കണം തുണിത്തരങ്ങൾ ഞങ്ങൾ മൊത്തമായിട്ട് മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പൊതുവെ നാട്ടിൽ നിന്നല്ല കേരളത്തിൽ നിന്നല്ല പുറത്തുളള സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്നത് കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കോയമ്പത്തൂർ തിരുപ്പതി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വച്ചാണ് സാധനങ്ങളൊക്കെ ഞങ്ങളെടുക്കുന്നത്

അയ്യോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മളെപ്പോലൊരു സംരംഭക കൂടി വളർന്ന് വരികയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നല്ലത് തന്നെയാണ് ഇനി എൻ്റെ ഭാഗത്തുനിന്നെന്തെങ്കിലും സഹായമോ ഈ മൊത്തക്കച്ചവടക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമോ സ്ഥാപിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ സഹായിക്കാം എന്ത് വേണമെകിലും എന്നോട് ഒന്ന് വിളിച്ചാൽ മതി ആ ശരി

ഇത് സ്ഥാപനത്തിൻ്റെ കാർഡാണ് ഇതിലെൻ്റെ നമ്പറും ഉണ്ടാവും ഇനിയിതിൽ വിളിച്ചാൽ മതി എപ്പോൾ വേണമെങ്കിലും എന്നെ കിട്ടും

ആ ഒ ശരി ആ ശരിയെന്നാൽ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായും താങ്കളുടെ നമ്പറ് എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ വിളിക്കാം ഇതാണ് താങ്കളുടെ പൈസ ശരി നന്ദി